ഹലോ വിന്ദു ഷോപ്പ് അല്ലേ ആ ഞാനേ ലൊക്കേഷൻ കണ്ടേച്ചും വരുവാണേ ഞങ്ങളൊരു പത്ത് പേരുണ്ട് ഞങ്ങളേ ടെമ്പിൾ സന്ദർശിക്കാൻ വന്നതാണ് അത് വഴി അവിടെ എന്തുണ്ട് താൽക്കാലികമായിട്ട് ഞങ്ങൾക്ക് കഴിക്കുവാനായിട്ട് ചെറുതായിട്ട് ലഘു ഭക്ഷണം ആ ഞങ്ങൾ പത്ത് പേരുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അതനുസ ആ ആ ഞങ്ങൾ ടെമ്പിൾ സന്ദർശിച്ചിട്ട് ഞങ്ങൾ വരാം പത്ത് പേർക്കുള്ള ഏത് ഐറ്റംസ് ആണ് നല്ല രീതിയുള്ള എങ്ങനെയാണ് അതിന്റെ ആ ആ കട എപ്പോഴായിരിക്കും ഷോപ്പ് എപ്പോഴാണ് പൂട്ടുന്നത് മ് അപ്പം ഞങ്ങൾ അതേപോലത്തെ സമയത്ത് ഞങ്ങൾ അവിടെ എത്താം മ് ഞങ്ങൾ പത്ത് പേർക്കുള്ള ഫുഡ് എളുപ്പം എളുപ്പം അറേഞ്ച് ചെയ്ത് വയ്ക്കുമോ അവിടെ ഞങ്ങൾ അഥവാ ഇച്ചിരി ഞങ്ങൾ അപ്പം ടെം ടെമ്പിളിൽ ഞങ്ങൾ കയറി കുറച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുമ്പം താമസിക്കുമ്പം അതേപോലെ ഉള്ള ഇതായിരിക്കും അപ്പം ഇരിക്കാനുള്ള സൗകര്യങ്ങളും വാഷ്റൂം പോകാനും ആ എല്ലാം ഫ്രഷ് ആയിരിക്കണം ചൂടായിരിക്കണം ന കംപ്ലെയിൻറ് ഒന്നും ഉണ്ടാകാൻ പാടില്ല

ആ ആ എന്തൊക്കെ എന്തൊക്കെയാണ് വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മ് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഈ പഴംപൊരിയും പഴംപൊരിയും അതിനൊക്കെ കുറച്ച് എണ്ണ കൂടുതൽ ആയിരിക്കുമോ അപ്പോൾ അത് പോലെയുള്ള ഐറ്റംസ് കാരണം പല പല രോഗങ്ങൾ ഉള്ള കസ്റ്റമേഴ്സ് ആയിരിക്കുമല്ലോ വ കൂടെ ഒക്കെ ഉള്ളത് ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ചില അപ്പം ചെറിയ ഇ ചായ ആണെങ്കിൽ പോലും കോഫി ആണെങ്കിൽ ഷുഗർ ഒന്നും അധികം വേണ്ട അപ്പം അങ്ങനെ പല പല ഇതുള്ളവർ ഉണ്ട് രോ അസുഖങ്ങൾ ഉണ്ട് അപ്പം അത് അനുസരിച്ച് ഞങ്ങൾക്ക് അത്രയും നല്ല നീറ്റ് ആയിട്ടും ഒക്കെ ഞങ്ങൾക്ക് ആ പത്ത് പേർക്കും ഇരുന്ന് ഇരിക്കാനുള്ള ഉള്ളതൊക്കെ ഉണ്ടാക്കി വയ്ക്കണം അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഓക്കെ താ ഞങ്ങൾ ടിം ഓക്കെ കേട്ടു ഓക്കെ ഓക്കെ താങ്ക് യു